ഒന്ന് പത്ത് രണ്ടായിരത്തി പതിനാല് എട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊൻപത് മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുപത്തഞ്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്